പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും നിയമ വ്യവസ്ഥയിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ അതിപ്രസരം പോലീസിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രത്യേകിച്ചു ഭരിക്കുന്ന ആൾക്കാരുടെ ഇംഗിതത്തിന് അനുസരിച്ചു പോലീസ് ഉപയോഗിക്കപ്പെടുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നിയമം അവർ വ്യാഖ്യാനിക്കും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ എൽഡിഎഫിൻ്റെ നേതാക്കന്മാർ പറയുന്നതിന് അനുസരിച്ചു നിയമം അവർക്ക് വേണ്ടി വളച്ചൊടിക്കും അത്പോലെ അവർ അത് പല വിധത്തിൽ നമുക്കാകാം ഒന്ന് ഇപ്പം നിയമപരമായ പരിരക്ഷ കിട്ടേണ്ട ഒരാൾക്ക് അത് കിട്ടാതെ പോവും

ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെങ്കിൽ അവർക്ക് വേണ്ടി പോലീസ് വഴങ്ങി കൊടുക്കും ഇനി അതല്ല ഒരു ചില സമുദായ സഘടനയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പുകളാണെങ്കിൽ അവരെ പിണക്കിയാൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ വോട്ട് കിട്ടാതെ പോകും നമ്മുടെ പാർട്ടിക്ക് അത് ദോഷം ഉണ്ടാകും എന്നു ചിന്തിച്ചു കൊണ്ട് അവർക്ക് എതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ വരും കൂടുതലും അത് മത തീവ്രവാദം എന്ന് വേണെ പറയാം മത സംഘടനയും ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് പ്രധാനമായിട്ടും വരുന്നത് ചില മതത്തിൻ്റെ ആൾക്കാരെല്ലാം സംഘടിച്ചു നിൽക്കുകയും അവർ ഒരു പ്രത്യേക വോട്ട് ബാങ്കൊക്കെ ആയിട്ട് നിക്കം ചെയ്യുമ്പം അവർ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ പെട്ടവരാണെങ്കിൽ പോലും ഒരു മതഭാഗത്തിൻ്റെ പേരിൽ അവരെ എന്തെങ്കിലും ചെയ്തു എന്നതിൻ്റെ പേരിൽ അവർ എതിരായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് ലോകം മുഴുവൻ കാണുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല അപ്പം ആ വോട്ട് കിട്ടാൻ വേണ്ടി ആ രാഷ്ട്രീയ സംഘടനകൾ പോലീസിനെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഇപ്പം എന്നാ പറയുന്നത് വളരെ ജനാധിപത്യത്തിൻ്റെ ഒക്കെ വളരെ മുമ്പിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടനിൽ പോലും കണ്ടല്ലോ അവിടുത്തെ പെൺകുട്ടികളെ ചില സമുദായത്തിലെ ആൾക്കാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ മറച്ചു വയ്ക്കാനാണ് അന്നത്തെ രാഷ്ട്രീയ സംഘടന ബ്രിട്ടനിൽ ചെയ്തത് അപ്പം ഇന്ത്യയിലും അതിൻ്റെ അതേ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും ഇപ്പം നടക്കുന്നുണ്ട് അത് പത്ത് കൊല്ലം മുമ്പാണ് നടന്നെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴാണ് അത് നടക്കുന്നത് അപ്പം രാഷ്ട്രീയ പോലീസുകാരെ ഇതിൽ നിന്നൊക്കെ വേർപെടുത്തി മതത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നുമൊക്കെ വേർപെടുത്തി കൈക്കൂലിക്കും എന്നാ പറയുന്നത് പക്ഷപാതത്ത് നിന്നും അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്തി പോലീസ് എന്നു പറയുന്നത് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമല്ല സേവനം ചെയ്യേണ്ടവരാണ് നിയമം നടപ്പാക്കേണ്ടവരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം പോലീസ് സേനയിൽ നിലനിർത്തുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൗരന്മാരെ സംരക്ഷിക്കാനും സമൂഹത്തിൽ സമാധാനം നിലനിർത്താനും പറ്റുകയുള്ളൂ നമുക്ക് അറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില മതവിഭാഗക്കാർ വളർന്നു വരുമ്പോൾ അവിടെ തീവ്രവാദം കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ ചില മത വിഭാഗങ്ങൾ വരുമ്പം അവർ രാഷ്ട്രത്തെയും മതത്തെയും ഒരുപോലെ കാണാനും അത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് എന്ന് കണ്ടുകൊണ്ട് രാഷ്ട്രത്തെ സേവിക്കാനും മതത്തെ സ്നേഹിക്കാനും പറ്റുന്നുണ്ട് എന്നാൽ ചിലർക്ക് രാഷ്ട്രത്തെ ഒഴിവാക്കി മതത്തെ മാത്രം സ്നേഹിക്കുന്നതായിട്ട് ഒരു ചിന്താഗതിയിലോട്ട് വരികയാണെങ്കിൽ അവിടെ അക്രമം ഉണ്ടാവും അപ്പം അതിനെ തടയിടാൻ ആ നാട്ടിലെ പോലീസ് ശ്രമിച്ചില്ല എങ്കിൽ ഭാവിയിൽ അത് പൗരന്മാർക്ക് ദോഷമായിട്ട് സംഭവിക്കും അതുകൊണ്ട് പോലീസ് സേനയെ രാഷ്ട്രീയത്തിൽ നിന്നും മതത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം മത തീവ്രമതം ഉള്ള സ്വഭാവക്കാരായ ആൾക്കാർ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കണം രാഷ്ട്രീയക്കാരുടെ ഒത്താശക്ക് അനുസരിച്ചു നീങ്ങുന്ന പോലീസ്കാരെ ഒഴിവാക്കാൻ പറ്റിയാൽ നമുക്ക് നമ്മുടെ നീതി വ്യവസ്ഥയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാൻ പറ്റും ഇന്ന് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റ കൃത്യങ്ങൾ കുറിച്ചു എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയക്കു മരുന്നാണ് രാജ്യത്ത് നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ ഒന്നാം സ്ഥാനം കുഞ്ഞു കുട്ടികൾ മുതൽ ചെറുപ്പക്കരിലേകൊക്കെ മയക്കു മരുന്ന് ആദ്യമേ കിട്ടി കഴിയുമ്പം അതിന് ഒരു അഡിക്ഷനായി കഴിയുമ്പോൾ പിന്നെ ഏത് വിധത്തിലും പൈസ ഉണ്ടാക്കി ഇത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമായിട്ട് അവർക്ക് വരും പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ലാവിശായിട്ടും വണ്ടിയിലും ഒക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്കും അങ്ങനെ വേണമെന്ന ഒരു ചിന്ത ഉണ്ടാവും അപ്പം മോഷണം പിടിച്ചു പറി മയക്കുമരുന്നിൻ്റെ വ്യാപാരങ്ങൾ കള്ളക്കെടത്തുകൾ അങ്ങനെയുള്ള പെട്ടെന്ന് പൈസ ഉണ്ടാക്കാവുന്ന മാർഗങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട് അതിന് ഒന്നാം സ്ഥാനം മയക്കു മരുന്നാണ് അപ്പം അത് നമ്മൾ തുടക്കത്തിലെ നുള്ളിക്കളയണം ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവൻ പിടിക്കപ്പെടുമെന്നും അത് സമൂഹത്തിൽ തെറ്റാണെന്ന് അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ വേണ്ടാത്തവരായി മോശക്കരായി കാണണമെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ മാത്രമേ ഈ കുറ്റ കൃത്യങ്ങൾ കുറേ കുറയുകയുള്ളൂ മദ്യപാനിയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് സമൂഹത്തിന് ആപത്താണെന്നും അവൻ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടവനാണെന്നും അവന് മാന്യത ഉണ്ടാകാൻ പാടില്ലെന്നും

ഇതിന് ഒരു ശമനം വരും എന്നാണ് എൻ്റെ ഒരു വിചാരം അതുകൊണ്ട് ഈ മയക്കുമരുന്നും തെറ്റായ രീതിയിലും പണം ഉണ്ടാക്കുന്നത് തെറ്റായ കാര്യമാണെന്നും അങ്ങനെ ഉണ്ടാകുന്ന പണം കിട്ടി അവർ വലുതായാൽ അവർ മഹാന്മാരല്ലെന്നും അവരെ വലിയ വില കൊടുക്കേണ്ടവരല്ലെന്നും എന്ന് നമ്മളൊരു ബോധ്യം ഈ തലമുറക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അടുത്ത തലമുറ എങ്കിലും ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സഹായകമാകുന മയക്കു മരുന്ന് ഒക്കെ അടിച്ചു ബൈക്കിലൊക്കെ പോകുന്നത് കാണുമ്പം പിള്ളേർക്ക് അവരോട് ഒരു സ്വീകാര്യത നമുക്ക് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് തോന്നും അത് തെറ്റാണ് അങ്ങന തോന്നാൻ പാടില്ല എന്ന അവബോധം നമ്മൾ അവർക്ക് കൊടുക്കുമ്പം അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാതെ വരും